കോട്ടയം ജില്ലയിൽ ഗതാഗതകുരുക്കെന്ന് പറയുന്നത് ഗതാഗതകുരുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രവർത്തി ദിവസങ്ങളിൽ സ്കൂൾ പിന്നെ സ്കൂൾ വാഹനങ്ങളും അതുപോലെ ജോലിക്കാരുടെ എല്ലാം തിരക്ക് മൂലം കാൽനടക്കാർക്ക് നടന്ന് പോകാൻ ഭയങ്കരം ബുദ്ധിമുട്ടുകളാണ് ടു വീലറിൻ്റെ നിരവധിയായ ടു വീലർ നിരത്തിലിറങ്ങിയതിനോടുകൂടി മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകളായി അതായത് റോഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചും ഹോൺ മുഴ ഹോൺ മുഴക്കിയും ഹൈ സ്പീഡിലുള്ള വാഹനങ്ങളുടെ യാത്രയും കാരണം നമ്മൾക്കൊരു തരത്തിലും അത് മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നതോടു കൂടി കോട്ടയം ജില്ലയിലെ ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങിയും അതായത് രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ വെള്ളം ഗതാഗതകുരുക്ക് കുണ്ടും കുഴിയുമായിട്ട് മനുഷ്യർക്ക് ഗതാഗത യോഗ്യമല്ലാതെയും നടന്ന് പോകാനുള്ള അസൗകര്യം ഉണ്ടാവുകയും ചെയ്യുന്നു